ഞാൻ ആദ്യമായിട്ട് പാടാൻ പോയത് നമ്മുടെ മാതൃവേദിയുടെയൊക്കെ മത്സരത്തിന് വേണ്ടി ചങ്ങനാശ്ശേരിയിലായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ പാടാനായിട്ട് കയറി ചെല്ലുമ്പം എല്ലാവരും നല്ലതായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് നല്ല ധൈര്യത്തോടു കൂടിയൊക്കെ നിൽക്കുന്നത് കണ്ടപ്പം ഞാനും ഓർത്തു നമുക്ക് പാടാൻ സാധിക്കും എങ്ങനെയെങ്കിലുമൊക്കെ പാടാം ഏതായാലും പള്ളിയിൽ നിന്ന് വന്നതല്ലെ എന്നൊക്കെ ഓർത്ത് അതിനകത്തൊക്കെ നിന്നു അങ്ങനെ ഇരിക്കുമ്പം ആ ഹാള് നിറച്ച് ആൾക്കാരെല്ലാം ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നത് കണ്ടപ്പം പാദം മുതൽ ഉച്ചി വരെ നമുക്ക് വിറയൽ തുടങ്ങി ആൾക്കാരെ ഫേസ് ചെയ്യാനൊരു പേടി ചുണ്ടൊക്കെ ഉണങ്ങാൻ തുടങ്ങി പേടി പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വിറയൽ സംഭവിച്ചൊരു സമയമായിരുന്നത് അങ്ങനെ നിൽക്കേ ആദ്യത്തെ ആളിന് പാടിക്കഴിഞ്ഞു രണ്ടാമത്തെ ആൾ പാടിക്കഴിഞ്ഞു ഇപ്പം വരും ഇപ്പം വരുമെന്നുള്ള പ്രതീക്ഷയിലിങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ പേരിൻ്റെ പേര് വിളിക്കുന്നത് ഞാൻ സ്റ്റേജിലോട്ട് കയറി സ്റ്റേജിലോട്ട് കയറി ആദ്യത്തെ ഒരു പോർഷൻ തുടങ്ങിയപ്പം തന്നെ എൻ്റെ ഊർജം മുഴുവൻ ചോർന്ന് പോയി പക്ഷേ എങ്ങനെയൊക്കെയാണോ പാടി പാടിയതെന്ന് എനിക്കറിയില്ല കാരണം ഇടക്കത്തെയൊക്കെ വരികളൊക്കെ തെറ്റിച്ചോ എങ്ങനെയൊക്കെയോ ചുണ്ടങ്ങ് വരണ്ടുണങ്ങാൻ ഉണങ്ങിത്തുടങ്ങി എനിക്കിത് ഒട്ടും വെള്ളമില്ല തൊണ്ടയാണെങ്കിൽ കാറുന്നു പക്ഷേ പാടിത്തീർക്കണം പാടി തീർത്തില്ലെങ്കിലവർ ടൈമൗട്ട് ടൈം തന്നിട്ടുണ്ട് അത്ര സമയത്തിനുള്ളിൽ നമ്മൾ പാടണമെന്നുള്ള ഒരു ടാസ്ക്കിലാണ് നമ്മൾ നിൽക്കുന്നത് പള്ളിയെ ഓർക്കുന്നു നമ്മുടെ കൂട്ടുകാരെ ഓർക്കുന്നു ഈ മാതൃവേദിയുടെ ഒരു മത്സരമാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് പാട്ടിൻ്റെ ലിറിക്സ് തെറ്റിച്ചാണെങ്കിലും അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ അത് എങ്ങനെയൊക്കെയോ പാടിത്തീർത്ത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇത്രയും വിറയലോടുകൂടി ഞാനാദ്യമായിട്ട് പാടിയൊരു സമയം അന്നത്തെ ആ ആ ഒരു പാട്ട് മത്സരമാണ്